ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൺവെൻഷൻ ഓവൻ വാങ്ങി ഓവൻ കൊണ്ട് പല ഉപകാരങ്ങളും നടക്കുമെങ്കിലും അതിന് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു മോശമായിട്ടുള്ള ഒരു അഭിപ്രായം എന്നു പറയുന്നത് ഇത് പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ടൈം എടുക്കുകയും എടുക്കുന്നുണ്ട് അതുപോലെതന്നെ പാചക കറന്റ് ബില്ല് അല്ലെങ്കിൽ കറന്റ് മൂവായിരം വാട്സോളം കറന്റ് ആവശ്യമായിട്ട് വരുന്നുണ്ട് ഒരു സിംഗിൾ യൂസേജിന് തന്നെ അതുകൊണ്ടുതന്നെ ഈ ഒരു പ്രൊഡക്ടിനോട് എനിക്ക് വലിയ താൽപര്യമില്ല അതുപോലെ നമ്മളുടെ നോർമലായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനും ബുദ്ധിമുട്ടാണ് ഇതില്